ഹലോ ആ അതെ അതെ ആ ഓ പിന്നെ റേഞ്ച് പോയതാണോ ഇവിടെ കോഴിക്കോട് പിന്നെ ബേബി മെമ്മോറിയൽ ഉണ്ട് പിന്നെ അതുപോലെ മിംസ് ഉണ്ട് പിന്നെ മെഡി മെഡിക്കൽ കോളേജ് ഒക്ക് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എർ

ആ നല്ല ആ നല്ല ഡോക്ടർസ് ഉണ്ട് നല്ല ഫെസിലിറ്റിയും ഉണ്ട് പിന്നെ ഇപ്പോൾ എല്ലാ ഇപ്പോൾ വയനാട്ടിൽ ആണെങ്കിലും എവിടെയാണെങ്കിലും ഇപ്പോൾ പെട്ടെന്നുതന്നെ എന്തെങ്കിലും ഒരാവശ്യത്തിന് മെഡിക്കൽ കോളേജിലേക്ക് ആണല്ലോ കൊണ്ട് വരുന്നത് ഇപ്പോൾ വയനാട്ടിലും ഒരു മെഡിക്കൽ കോളേജ് വന്നിട്ടുണ്ട് പിന്നെ അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് പോവേണ്ടതെന്ന് വെച്ചാൽ അവിടെ പോവാം പിന്നെ ന നല്ലൊരു ഇതെന്ന് പറയുന്നത് പിന്നെ മെഡിക്കൽ കോളേജ് തന്നെയാണ് ഇപ്പം അധികം ഇപ്പോൾ അധികം ക്യാഷ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ ഇപ്പോൾ മെ മെഡിസിൻസ് ഒക്കെ ആണെങ്കിൽ അധികം കുറഞ്ഞ റേറ്റിലൊക്കെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ആ കുഴപ്പം ഇല്ലല്ലേ അല്ല എന്നാൽ നി ഫസ്റ്റ് തന്നെ ആ നെഞ്ച് വേദനയൊക്കെ ആവുമ്പോൾ സ്കാനിങ്ങ് ഒക്കെ ചെയ്യേണ്ടി വരും വല്ല എന്താണെന്ന് അറിയില്ലല്ലോ അപ്പോൾ എം ആർ ഐ സ്കാനിങ്ങ് ഒക്കെ ചെയ്യണമെങ്കിൽ നല്ല പൈസ വരും അപ്പോൾ നിങ്ങൾ അത് ആ പിന്നെ മിംസ് ഒക്കെ നല്ല സ്ഥലമാണ് നല്ല ഒരു ഹോസ്പിറ്റൽ ആണ് അവിടെ പോയാലൊക്കെ നല്ല ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് എന്താണ് പെട്ടെന്നുതന്നെ എന്താണ് പറ്റി എന്താണ് കാരണം എന്താണെന്ന് കണ്ട് പിടിക്കാം പിന്നെ ഇപ്പം അവിടെ പോയി എന്താണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് പിന്നെ ഈ രോഗം എന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ എന്താണ് രോഗം എന്നൊക്കെ അറിഞ്ഞാൽ പിന്നെ പ്രശ്നം ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മെഡിക്കൽ കോളേജിൽ ആക്കിയാൽ അധികം റേ അധിക അധികം വിലയൊന്നും ഇപ്പോൾ അധികം കാശൊന്നും കൊടുക്കേണ്ടി വരില്ല ഇപ്പോൾ നമ്മൾ കാശുണ്ടെങ്കിലും ഇല്ലെങ്കിലും കുറഞ്ഞ ഇതാണല്ലോ നോക്കുക അപ്പോൾ അവിടെ അവിടെ പോയിട്ട് എന്താണെന്നറിഞ്ഞിട്ട് പിന്നെ മെഡിക്കൽ കോളേജിൽ ആക്കിയാലും കുഴപ്പമില്ല അവിടെ നല്ല ഫെസിലിറ്റി ഉണ്ട് ഇപ്പോൾ ഓരോ സെക്ഷൻ ആയിട്ടാണ് ഉള്ളത് ഇപ്പോൾ നെഞ്ച് വേദനക്ക് വേറെ സെക്ഷൻ പിന്നെ കാൻസർ പേഷ്യന്റ് വേറെ സെക്ഷൻ അങ്ങനെ ഓരോ ഓരോ സെക്ഷൻ ആണല്ലോ അപ്പോൾ എവിടെ പോയാലും കുഴപ്പമില്ല പിന്നെ ഇവിടെ വയനാട്ടിൽ കൽപ്പറ്റയിലുണ്ട് പിന്നെ ഫാത്തിമ ഹോസ്പിറ്റൽ ഉണ്ട് അവിടെ വേണമെങ്കിൽ പോവാം പിന്നെ വേറെ കേരളത്തിൽ തന്നെ പിന്നെ എറണാകുളത്തുണ്ട് പിന്നെ അതുപോലെ ആ ഒരു ഒരു ഒത്തിരി ഹോസ്പിറ്റൽ ഉണ്ട് കേരളത്തിൽ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലുള്ളതാണെങ്കിൽ ഇവിടെ പോവാം പിന്നെ ആ ആ അത്യാവശ്യം നല്ല ഡോക്ടർസും ഉണ്ട് ആ ആ നിങ്ങൾ ഇപ്പോൾ പോവുന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ വിളിച്ചാൽ മതി എവിടെയാണ് പോവുന്നതെന്ന് തീരുമാനിച്ചിട്ട് ഇവിടെ ബുക്കിങ്ങിൻ്റെ സൗകര്യമൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ ഇവിടുന്ന് ബുക്ക് ചെയ്ത് തരും അപ്പോൾ അങ്ങോട്ട് പോയാൽ മതി ആ എന്നാൽ ഓക്കെ ആ ഒന്നുകൂടെ കോൺടാക്ട് ബുക്കിംഗ് ഒക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ പോവുന്നത് തീരുമാനിച്ചിട്ട് ഏത് ഹോസ്പിറ്റലിൽ ഒക്കെയാണ് പോകുന്നതെങ്കിൽ ഇവിടെ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി അപ്പോൾ ഞങ്ങൾ ബുക്കിങ്ങ് തരാം ടോക്കൺ നമ്പർ തരാം ആ എന്നാൽ ഓക്കെ